നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും കൃഷിയാണ് എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരെന്നു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ആ എന്താ പറയുക ഇപ്പം അല്ലാണ്ട് കൃഷിക്കൊന്നും ആരേയും കിട്ടാതായിത്തുടങ്ങി കാരണം എല്ലാവരും പഠിച്ച് പഠിച്ച് വേറെ ജോലികളിലേക്കൊക്കെ പോവുകയാണ് അപ്പം പ്രധാനമായിട്ടും കൃഷിയിൽ ആരും നിൽക്കാത്തൊരു സാഹചര്യമാണുളളത് നമ്മൾ കൃഷി ചെയ്യാണ്ട് നമുക്ക് അതായത് കൃഷി ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാ കാര്യത്തിനും എന്താ പറയുക പറ്റുളളൂ നമ്മൾ ശരിക്കും ജീവിക്കുന്നത് എന്തിനാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ എല്ലാവരും ഇപ്പം വേറെ പലതിൻ്റെയും പുറകിലേക്ക് പോകുന്നതുകൊണ്ട് കൃഷി ഇപ്പം ആർക്കും വേണ്ട അപ്പോൾ നമ്മുടെ ഭക്ഷണവും നമ്മൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കൃഷിയാണ് പ്രധാനമായിട്ടും നേരിടുന്ന വെല്ലുവിളിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പലതരം സാധനങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആർക്കും അങ്ങനെ വേണ്ട ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ എന്നുപറഞ്ഞാൽ വേണ്ട പിന്നെ സാങ്കേതികവിദ്യയുടെ പുറകെയാണ് ഇപ്പോൾ എല്ലാവരും പോകുന്നത് എല്ലാവർക്കും സാങ്കേതിക വിദ്യയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഇതൊക്കെയുണ്ടെങ്കിൽ ആൾക്കാരുടെ ജീവിതം അന്നിപ്പം ഭക്ഷണം പോലും കഴിക്കാണ്ട് ഇരുന്നാൽപ്പോലും അവർക്ക് പ്രശ്നം ഇല്ല ഈ ഇപ്പോൾ അതിന് ഇൻ്റർനെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നോക്കി നമ്മുടെ സമയം ചിലവഴിക്കുകയാണിപ്പോൾ എല്ലാവരും ചെയ്യുന്നത്